പഴയ തലമുറക്കാർ ജ് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ മത വിശ്വാസികളായിരുന്നു കാരണം അവർക്ക് എന്നും പള്ളിയിൽ പോവാനും ഓ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും ഇട ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോകാനും ഞായറാഴ്ച്ച ദിവസം ഒക്കെ കട ഉള്ള ദിവസം ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ അയ്യോ അത് പാപം ആണല്ലോ എന്നും പറഞ്ഞിട്ട് പോവും പിന്നെ മുടങ്ങാതിരിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ തലമുറ ആണെങ്കിൽ അത്ര വിശ്വാസം ഒന്നും കാണിക്കുന്നില്ല അവർ ഇതിനെ കുറിച്ചൊക്കെ ഒരു വേറെ ഒരു വേറിട്ട ഒരു ജീവിതം ആണ് സോഷ്യൽ മീഡിയ അതെ അതിനെ കൂടാ അതിലേക്കാണ് അവർ ഇപ്പം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ പഴയ ആൾക്കാർ എന്നൊക്കെ എൻ്റെ അപ്പച്ചൻ ഒക്കെ എൻ്റെ സമയത്ത് അവരൊക്കെ എന്നും പള്ളിയിൽ അമ്മച്ചി ഒക്കെ ആണെങ്കിൽ എന്നും പള്ളിയിൽ ഒക്കെ പോവും എൻറെ അച്ചാച്ചൻ ആണെങ്കിലും എന്നും രാവിലെ പള്ളിയിലൊക്കെ പോവും പിന്ന കുർബാനയ്ക്ക് പോവും പ്രാർത്ഥനകൾ ഓരോ കുടുംബ കൂട്ടായ്മകൾ പിന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഒക്കെ പള്ളിയിൽ വയ്ക്കുമ്പോഴത്തേന് അതിനൊക്കെ പോവുകയും അതിലൊക്കെ കൂടുതൽ ആത്മീയമായിട്ടൊക്കെ സഹകരിക്കുക ഒക്കെ ചെയ്യുന്നതായിരുന്നു പക്ഷേ ആ അത്രയുള്ള ഇതൊന്നും ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ആ ഒരു ഒരിത് പിന്നെ ആ ഒരിത് കാഴ്ച്ചപ്പാടിൽ കണ്ട് വളർന്നതുകൊണ്ടാകാം ഇപ്പം എനിക്ക് പള്ളിയിൽ പോകാനും ഇട ദിവസങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ പോവുന്നുണ്ട് പിന്നെ അല്ലാത്ത ദിവസങ്ങളും ഈയിടെ പിന്നെയോ കുർബാന മുടക്കം കൂടാതെ കാണണം എന്നൊക്കെ ഉള്ള ഒരു ഒരു ഒരു ആ ഒരു ത്വര മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പം എൻ്റെ നമ്മുടെ പുതിയ പിള്ളേർ എല്ലാം എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ മാതാപിതാക്കൾ അവരുടെ കൂടെ ചെന്ന് നിന്ന് പള്ളിയിൽ പോടാ പള്ളിയിൽ പോടാ എന്നൊക്കെ പറഞ്ഞ് അവരെ അത് ചെയ്യിപ്പിച്ചാലേ അവർ അത് ചെയ്യുള്ളൂ അല്ലാതെ സ്വന്തം ആയിട്ട് ആ എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവണം ഇനി നാളെ കട ഉള്ള ദിവസമാണ് എനിക്ക് പള്ളിയിൽ പോയേ പറ്റുള്ളൂ എനിക്ക് കുർബാന മുടങ്ങിയാൽ അതെൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു പാകപ്പിഴയാണ് എന്നൊന്നും അവർ ആകില്ല നമ്മൾ പുറകെ നിന്ന് പുഷ് അപ്പ് ചെലുത്തിയാലേ അവർ അത് പോവുള്ളൂ അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും പഴയ തലമുറയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ തലമുറ തീരെ മത മതപര കാര്യങ്ങളിലേക്ക് മത വിശ്വാസിയായി ഇപ്പം ഇത് ഒരു ഒരു എന്നുവെച്ചാൽ എന്തുവാ ഒരു തീരെ ഒരു പിന്നോക്ക അവസ്ഥയിലേക്കാണ് പോയിക്കോണ്ട് ഇരിക്കുന്നത്